എനിക്ക് സർക്കാരിൽ നിന്ന് എങ്ങാണ്ട് പുതിയ വൈദ്യുതി ബന്ധം കിട്ടുന്നെന്നു വെച്ചാൽ കൂടുതൽ അറിവില്ലാ കാരണം എൻ്റെ നിഗമനം വെച്ച് നമ്മളപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുത്തു കഴിയുമ്പോഴാണ് ഇത് കിട്ടുന്നത് പിന്നെ ഉള്ളത് വൈദ്യുതി വിച്ഛേദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താ പറയുക കാരണം വെച്ചാൽ ചില സമയങ്ങളിൽ ഒരു മെസ്സേജ് പോലും ഇടാതെ കരണ്ട് കട്ട് ചെയ്യും അതൊക്കെ പാടാണ് പിന്നെ ഇപ്പോഴത്തെ സമയത്ത് ഈ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ വെള്ളം വറ്റിക്കാനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സർക്കാർ ഒരു മുൻ നിർദ്ദേശവും ഇല്ലാതെ കരണ്ട് കട്ട് ചെയ്യുന്നു അതു അവരെ പൈസ അടച്ചില്ലയെന്നും പറഞ്ഞ് ഫ്യൂസ് കട്ട് ചെയ്യുന്നു അതിനോടൊക്കെ നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം നമുക്കെന്ത് പ്രശ്നങ്ങൾ കറണ്ട് കട്ട് ചെയ്യുന്നതെന്ന് അല്ലെ തലേ ദിവസം തന്നെ ഒരു കർഷകർക്കൊരു മെസ്സേജ് കൊടുക്കണം എന്താ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നമുക്ക് വൈദ്യുതി കട്ട് ചെയ്യുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാമെന്നുള്ളൊരു മെസ്സേജ് കർഷകർക്ക് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ അവർക്ക് അവരുടെ സബ്സിഡി കാര്യങ്ങൾ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് വൈദ്യുതിക്കാണെങ്കിലും ഉണ്ടല്ലോ എന്തൊക്കെ എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല പണ്ട് ഞാൻ കൃഷി ചെയ്യുന്നവർക്ക് വെള്ളം വറ്റിക്കാനായിട്ടൊക്കെ എന്തൊക്കെയോ ഇതുണ്ടെന്ന് പറയുന്നു എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല അതൊക്കെ ഉള്ള അങ്ങനെ അവർക്ക് കറക്റ്റ് ഉള്ള സമയത്ത് അർഹതപ്പെട്ടവർക്ക് അർഹമായ കാര്യങ്ങൾ അവരുടെ കൈകളിൽ തന്നെ എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് പിന്നെ പിന്നെന്താ ഉള്ളത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കർഷകർ അഭിമുഖീകരിക്കുന്നുണ്ട് കാരണം അമിതമായ ഫീസ് ഈടാക്കൽ വൈദ്യുതി ബിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിനേക്കാളും ചിലപ്പം കൂടുതലായിട്ട് ചാർജ്ജീടാക്കുന്നു അതൊക്കെ കർഷകരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്കായാലും അതൊരു സബ്സിഡി ഒക്കെ എപ്പോഴും കൊടുക്കുന്ന കൊടുക്കണം കരണ്ട് ഉപയോഗത്തിലൊക്കെ സബ്സിഡി കൊടുത്ത് അവരെ നമ്മുടെ കൃഷി എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ സർക്കാരിൻ്റെ വശത്തു നിന്നായാലും പൊതു ജനങ്ങളുടെ വശത്തു നിന്നാണെങ്കിലും നമ്മൾ ചെലും കാരണം കൃഷി ചെയ്യാൻ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കാരണം അവർ പറയുന്ന അവർക്ക് ആനുകൂല്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല അപ്പം ഇങ്ങനെ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതൊക്കെ ചെയ്തു കൊടുക്കുക കാരണം വൈദ്യുതി അമിതമായിട്ട് വന്ന് ബില്ലൊക്കെ അമിതമായിട്ട് വന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റത്തില്ല കാര്യം സബ്സിഡി ഒക്കെ ഏതെങ്കിലും സമയത്തായിരിക്കും കൊട അപ്പം ഈ കറക്റ്റ് കറക്റ്റ് സമയത്ത് വൈദ്യുതി ബിൽ അടയ്ക്കാനായിട്ടൊന്നും അവർക്ക് സാധിക്കില്ല അപ്പതിൻ്റേതായ ഒരു ഇത് അവർക്ക് കൊടുക്കണം ഒരു സമയം കൊടുക്കു ഇന്ന സമയത്തിന് അടയ്ക്കണം അല്ലെങ്കിൽ വൈദ്യുതി കട്ടാക്കും എന്നൊരു മെസ്സേജ് കൊടുക്കും പിന്നെ അവരെ ഒത്തിരി ഉപദ്രവിക്കാതെ അവരുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് മനസ്സിലാക്കി നമ്മൾ എപ്പോഴും കരണ്ടിനെയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നു അവർ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള ഈ ഈ ഒരു യുഗത്തിൽ എന്തെങ്കിലൊക്കെ ആനുകൂലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ ഈ ഒരു യുഗത്തിൽ നമുക്ക് കർഷകരെ അവരുടെ രീതിയിൽ മുന്നോട്ട് കൊണ്ടു വരാനായിട്ട് സാധിക്കത്തുള്ളൂ നല്ല രീതിയിൽ നല്ലൊരു കർഷകനാകാനായിട്ട് സാധിക്കണമെങ്കിൽ ഈയുള്ള ആനുകൂല്യം എല്ലാം തന്നെ സർക്കാർ സർക്കാരിൽ നിന്ന് കിട്ടണം അതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സർക്കാരിൽ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മളൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ സർക്കാരിരുന്നു കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്തേക്ക് നമ്മളെ കൃഷി രീതികളെല്ലാം വെറുതെ വ്യർത്ഥമായി പോകത്തേയുള്ളൂ കാരണം അവർക്ക് അറിയാം ഇതിൽ നിന്നൊന്നും കിട്ടുന്നില്ല കാരണം ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് വൈദ്യുതി ചാർജടച്ചു വെള്ളത്തിന് ചാർജ് കൊടുത്തു വെള്ളത്തിന് കൊടുത്തു പക്ഷെ അതെല്ലാം കൊടുത്തു കഴിയുമ്പോഴും കർഷകർക്ക് അവരുടെ കയ്യിലേക്ക് ഒന്നും എത്തുന്നില്ല അവസാനം കാണത്തില്ല കാരണം സ്വർണ്ണം പണയം വെച്ചും മറ്റുള്ളവരെ കയ്യിൽ നിന്നു കടം വാങ്ങിച്ചിട്ടൊക്കെ ആയിരിക്കും കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം അവർക്ക് ഒരുമിച്ച് ഒറ്റ രീതിയിൽ താങ്ങാൻ പറ്റത്തില്ല അതൊക്കെ അതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ഒരു എന്താ ഒരു സഹകരണത്തോടെ മറ്റുള്ള മറ്റു സംഘടനകളുടെ സഹായത്തോടെ അവരെയെല്ലാം ഒന്ന് സഹായിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ മുന്നോട്ടു കൊണ്ടു വരാനായിട്ട് നല്ല രീതിയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈ കോർത്ത് പ്രവർത്തിക്കാം